ഫോട്ടോഗ്രാഫി ഒരു വിനോദ വൃത്തിയായിട്ട് ഞാൻ പണ്ട് മുതലേ കണക്കാക്കിയിരുന്നില്ല എന്നാൽ അതിനോട് കൂടുതൽ താല്പര്യവും ഉപയോഗിച്ചതും നമ്മുടെ കോവിഡ് കാലത്താണ് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാതെയും മറ്റ് പുറത്തോട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുകയും വീട്ടിലിരുന്നപ്പോഴ് നമ്മുടെ ഒഴിവ് സമയങ്ങളെ ആസ്വാദികരമാക്കാൻ മൊബൈലുമായി വീടിന് പുറത്തും അതല്ലെങ്കിൽ അകത്തും അല്ലെങ്കിൽ വീട്ടംഗങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ള ചെറിയ ചെറിയ കോൺവർസേഷനുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും ശ്രമിച്ചിരുന്നു അങ്ങനെ ഫോട്ടോഗ്രാഫി ഒരു വിനോദവൃത്തിയായിട്ട് ഞാൻ തെരഞ്ഞെടുത്തു ഇപ്പോൾ യാത്ര പോവുമ്പോളും എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോളും ഒരു സെൽഫി എടുക്കാനും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും ഒക്കെ ഫോട്ടോഗ്രഫീയിൽ ഇങ്ങനെയുള്ള താല്പര്യം എന്നെ സഹായിച്ചു എന്ന് പറയാം